സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉറപ്പാക്കാൻ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാലയങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെതന്നെ മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തും എന്നതിനു വേണ്ടിയിട്ട് കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ സൗജന്യമാക്കി കൊടുക്കാവുന്നതാണ് പാഠപുസ്തകങ്ങൾ സൗജന്യം ആക്കി കൊടുക്കുന്നതിലൂടെ ഒരു വിധം രക്ഷിതാക്കൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സാഹചര്യം ഇല്ലാത്ത രക്ഷിതാക്കൾക്ക് അത് വളരെയേറെ പ്രയോജനം ചെയ്യുന്നു അതോടൊപ്പംതന്നെ ആ കുട്ടികൾക്കു വേണ്ടിയിട്ടുള്ള യൂണിഫോം അത് അവർക്ക് ഫ്രീ ആയി കൊടുക്കുകയാണെങ്കില് അതും എല്ലാം സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അതാർജ്ജിച്ചെടുക്കാന് പറ്റും അതുപോലെതന്നെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഫീസ് ഇളവ് കൊടുക്കുകയെന്നുള്ളത് അതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ സംവരണതത്വങ്ങൾ കൃത്യമായ് പാലിച്ച് സമൂഹത്തിൻ്റെ പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ടു കൊണ്ടുവന്ന് അവർക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും സംവരണ കാർക്ക് സംവരണ ആനുകൂല്യങ്ങൾ അവർക്ക് പുനഃസ്ഥാപിച്ച് കൊടുക്കുകയും ആദിവാസി മേഖലകളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് കൃത്യമായ ഭക്ഷണം ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെതന്നെ ട്രൈബൽ ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഹോസ്റ്റലുകളെ ഒക്കെ അവരുടെ പഠനം അതുപോലെ ഭക്ഷണം അവരുടെ കായിക അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു അവസരം ഇതൊക്കെ കൊടുക്കുവാനായിട്ട് ഗവൺമെന്റിന് കഴിയുന്നുണ്ട് അതിനെകൂടെ കുറച്ചുകൂടി കൃത്യതയോടും സുതാര്യതയോടുംകൂടി ചെയ്തുകഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും എസ് സി എസ് ടി പ്രമോട്ടർമാർ കായിക അധ്യാപകരുടെ വിന്യാസം അതുപോലെതന്നെ കലാകായിക മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പരിശീലനം കൊടുക്കേണ്ട വിദഗ്ധരായ ആൾക്കാർ വിദഗ്ധരായ അധ്യാപകർ എന്നിവയൊക്കെ എന്നിവരെയൊക്കെ നമുക്ക് കൊടുക്കാൻപറ്റിയാൽ സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും നമുക്ക് തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉറപ്പാക്കാൻ കഴിയും സംവരണതത്വ സംവരണ ആനുകൂല്യങ്ങളുള്ള കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ പഠിച്ചുകഴിഞ്ഞാൽ അവരുടെ പഠി പഠിച്ച കാര്യങ്ങൾ കൃത്യമായി വിനിയോഗിക്കുവാനും ഉള്ള ഒരു അവസരം കൊടുക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും